സാധാരണ മലയാളികൾ കഴിക്കുന്ന സാധാരണ ആഹാരങ്ങളെല്ലാം കഴിക്കാനിഷ്ടമാണ് എന്നാൽ ഇപ്പോൾ കൂടുതലും ചോറ് പച്ചക്കറികൾ പഴ വർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് ഉപയോഗിക്കണത് വെജിറ്റേറിയനാണ് കൂടുതൽ ഞാൻ കാരണെന്തെന്നു വെച്ചാൽ കുറച്ചു പ്രായമായതു കൊണ്ട് ചോറ് ചെറിയ രീതിയിൽ ചോറും പച്ചക്കറികളും പഴ വർഗ്ഗങ്ങളും കഴിക്കുമ്പോൾ കൂടുതൽ സുഖം അനുഭവപ്പെടുന്നുണ്ട് പിന്നെ പയറു വർഗ്ഗങ്ങൾ അതും കഴിക്കാറുണ്ട് അതുമിഷ്ടമാണ് കടല അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ഉപയോഗിക്കാറുണ്ട് വെജിറ്റേറിയൻ ഫുഡ്ഡായത് കാരണം പഴ വർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതൽ ഉപയോഗിച്ച് പോകുന്ന കൊണ്ട് ദെഹനത്തിനും ശരീരത്തിനും സുഖം തോന്നുന്നു ആ രീതിയിലിപ്പ അങ്ങനെ മുന്നോട്ട് പോയ്ക്കോണ്ടിരിയ്ക്കയാണ്